ആ സർ ഞാൻ ഇവിടെ മേജർ പോസ്റ്റിലേക്ക് ഒരു ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ടിരുന്നു അപ്പം അത് അറിയാൻ വേണ്ടി വന്നതാണ് ആ താങ്ക് യു സർ എൻ്റെ പേര് റോഷൻ എന്നാണ് സർ മുമ്പ് ഞാൻ കഞ്ചിക്കോട് ഇൻസ്ട്രുമെൻ്റേഷൻ എന്നു പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സർ

എനിക്ക് അവിടെ രണ്ടു കൊല്ലത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചത് എൻ ഐ ടി ആണ് കോഴിക്കോട് ഞാൻ മെക്കാനിക്കൽ ആണ് സർ

അവിടെ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ആയിരുന്നു അവിടെ കിട്ടിയിരുന്നത് പിന്നെ ആ ആ ഓക്കെ സർ

ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അല്ലെ നമ്മുടെ ജോബ് അനുസരിച്ചിട്ട് എത്ര ആണോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതു അനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി സർ മുമ്പ് തെർട്ടി തൗസൻ്റ് വാങ്ങിയിരുന്നു ആ ആ ആ ആ ആ

ആ ആ ആ ആ ഓക്കെ സർ ഓക്കെ സർ

ആ ഓക്കെ സർ ഓക്കെ സാർ ഓക്കെ ഓക്കെ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സർ ആ ഹാ ഹാ ഓക്കെ ഇവർ മൂന്ന് മേനേജ് ചെയ്യേണ്ടി വരും അല്ലെ സർ

ഓ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ആണ് സർ ഓക്കെ ആണ് സർ ഇല്ല സർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ആണെങ്കിൽ നമ്മൾ പുറത്ത് പോകാണ്ട് കാര്യം ഇല്ലല്ലൊ ഇവിടെനിന്നുതന്നെ സേവ് ചെയ്യുന്നത് അല്ലെ സർ നല്ലത്

ഓ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ സർ ഓക്കെ സർ

ആ ഓക്കെ സർ ഓക്കെ സർ ആ ആ ആ ഓക്കെ സർ ഇല്ല സർ അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവില്ല സർ ആ ഓക്കെ സർ ഓക്കെ ഓക്കെ സർ ഓ ഓ നെക്സ്റ്റ് മന്ത് തന്നെ ജോയിൻ ചെയ്തോളാം

ആ അയക്കാം സർ

ആ ഓക്കെ സർ ഓക്കെ സർ

ആ ഹാ ഹാ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ സർ രണ്ട് പേർക്ക് അതിലും അങ്ങ് പോകും സർ ആ ഓക്കെ സർ ഓക്കെ സർ ഓക്കെ സർ താങ്ക് യു സർ ആ നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാം സർ ആ ഓക്കെ സർ

ആ ഓ ഇല്ല സർ കൊഴപ്പം ഇല്ല

അതെ അതെ അതെ ആ ഓക്കെ സർ ഓക്കെ സർ ആ ഓക്കെ സർ ഓക്കെ സർ

ഓക്കെ സർ താങ്ക് യു സർ